ഹലോ ജോസപ്പേട്ടാ എങ്ങനെ ഇരിക്കുന്നു ആ ജോസപ്പേട്ടാ അവൻ ക്ലാസിലൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നൊന്നും ഇല്ല അവന് പഠിക്കാൻ നല്ല കഴിവുണ്ട് പക്ഷെ അവൻ ശ്രമിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾ വീട്ടിൽ അവൻ ഇരുന്ന് പഠിക്കുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ അവൻ ഈയിടെ ആയിട്ട് ഭയങ്കര ഉഴപ്പാണ് അവൻ ഫോണ് എങ്ങനെയാ അവൻ ഫോണ് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ടോ ആ ഇനി മുതൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാൻ അവനോട് പറഞ്ഞ് ഫോൺ വാങ്ങി വെച്ചിട്ട് അവനെ കൂടുതൽ സമയം പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം നിങ്ങൾ ട്യൂഷന് വിടുന്നത് നമ്മളെ ആവശ്യത്തിന് വേണ്ടത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷൻ നിങ്ങൾക്ക് അത്ര ഇത് അവൻ മാർക്ക് കുറവ് വരികയാണെങ്കിൽ അവനെ ട്യൂഷന് വിടുന്നത് നന്നായിരിക്കും അതെ അത് അത്യാവശ്യം പാടാണ് ഫിസിക്സും മാത്സും പണ്ട് മുതലേ പൊതുവെ ഇച്ചിരി പാടുള്ള വിഷയങ്ങൾ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരു വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂറ് രണ്ട് വിഷയത്തിനുംകൂടി ട്യൂഷന് വിടുകയാണെങ്കിൽ നന്നായിരിക്കും നമുക്ക് അങ്ങനെ തല്ലാനുള്ള ഒരു നിയമം ഇവിടില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂള്ളു അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് അവൻ്റെ നമുക്ക് അവന് ഒരു അവസരംകൂടെ കൊടുക്കാം അവൻ ഇനിയും പഠിച്ച് മിടുക്കനായിക്കോളും അവൻ അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ പിന്നെ ശ്രമിക്കാത്തതുകൊണ്ടാ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അപ്പോൾ നിങ്ങളത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പം ഒന്നും ഇല്ല അവനെക്കൊണ്ട് ക്ലാസിലൊക്കെ അവൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കും കൂട്ടുകാരോട് വർത്തമാനം പറയും ഇതൊക്കെയാണ് പരിപാടികൾ പിന്നെ ബാക്കി കലാപരമായ കാര്യങ്ങളിലെല്ലാം അവൻ മുന്നിൽ തന്നെയാണ് പക്ഷെ പഠനത്തിൽ മാത്രമാണ് അവൻ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്നത് നമുക്ക് അത് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം ഇവൻ വീട്ടിൽ വന്നിട്ട് എത്ര മണി എത്ര മണിക്കൂറൊക്കെ പഠിക്കും എങ്ങനെ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയുടെ സമയത്ത് ഒന്ന് രണ്ട് മണിക്കൂറ് ആണോ എന്നാൽ നമുക്ക് അടുത്ത ഇപ്പോൾ അവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയ ശേഷം നമുക്ക് അടുത്ത അവൻ്റെ പരീക്ഷ കഴിയുമ്പം അവൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കാം ഇപ്പം അവനെ രണ്ട് വിഷയത്തിന് ട്യൂഷന് വിടുക വേറെയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ആ ശരി എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം സാറെ അടുത്ത വർഷത്തെ റിസൾട്ട് നമുക്ക് നോക്കാം ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത യോഗത്തിൽ കാണാം